അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ എന്നാ ഇടുക്കീൽ മുല്ലപ്പെരിയാറിപ്പോൾ തകർന്ന് വീഴാറായുള്ള അവസ്ഥയിലാണ് അപ്പോൾ മുല്ലപ്പെരിയാറിനെപ്പറ്റി പറയുമ്പം മുല്ലപ്പെരിയാറ് പണിത ഒരു രാജാവ് ഇപ്പോൾ രാജാവ് തമിഴ്നാട്ട്കാര്ക്ക് പിന്നെ ഡാമ് ഡീ സിന് കൊടുത്തു അതായത് പാട്ടത്തിന് കൊടുക്കുകയും അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു കോൺട്രാക്ടറ് പുള്ളി ഇത്തിരി തന്ത്രശാലിയായിരുന്നു പുള്ളി രാജാവിനോടെന്താ ഒൻപത് വർഷം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേനാണ് പാട്ടത്തിന് കോൺട്രാക്ടെഴുതിയത് അപ്പോൾ എന്നാ അവിടുത്തെ കോൺട്രാ തമിഴ്നാട്ടിലെ കോൺടാക്ട്രറ് ഒരു ഒൻപത് വർഷം കൂടെ കൂട്ടിയെടുത്തോട്ടെ എന്ന് രാജാവിനോട് ചോദിക്കയും രാജാവ് സമ്മതിക്കേം ചെയ്തു രാജാവ് നോക്കി ഇപ്പം എന്താ തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒൻപത് നൂറ്റി എട്ട് വർഷം അവർ അപ്പാട്ടത്തിനെടുക്കുവാന്നാണ് ഓർത്തത് പക്ഷേ തമിഴ്നാട്ട്കാർ ഉദ്ദേശിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം അതായത് തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ കൂടെ ഒരു ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം അങ്ങനെ